ഞങ്ങളുടെ പ്രദേശത്ത് നിരവധി ഗ്രൗണ്ട് പ്രാദേശികപരമായിട്ട് ഒരുപാട് ഗ്രൗണ്ടുകളും കാര്യങ്ങളുമൊക്കെ കളിക്കാനായിട്ടുണ്ട് അവിടെ എല്ലാ വൈകുന്നേരങ്ങളിലും യുവജനങ്ങൾ ക്രിക്കറ്റ് കളി അങ്ങനെയുള്ള വിനോദങ്ങൾ കളിക്കാറ് ഉള്ള ചില ഗ്രൗണ്ടുകൾ തന്നെയാണ് എന്നാൽ കൂടുതലും ഗ്രൗണ്ടുകൾ അതിനുള്ള ഫെസിലിറ്റിസ് വളരെ കുറവാണ് പ്രത്യേകിച്ച് ചില ചുരുക്കം ചില ഗ്രൗണ്ടുകൾ മാത്രമേ നമുക്ക് കളിക്കാനായിട്ടുള്ളു ബാക്കിയൊക്കെ ഒരുപാട് ഗ്രൗണ്ടുകളുയിപ്പം വാഹനങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെയായിട്ട് ഉപയോഗിക്കയാണ് ഏതാനും ചില ഗ്രൗണ്ടുകളിൽ മാത്രമേ ഇപ്പം നമ്മൾ കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അവിടെ തന്നെ കുട്ടികൾ വളരെ കുറവാണ് ക്രിക്കറ്റ് കളിക്കാനക്കെയായിട്ട് ആയാലും എല്ലാവരും കളിക്കാനൊക്കെയായിട്ട് ആൾക്കാർ വളരെ കുറവാണ് നാട്ടുകാർ നല്ല രീതിക്ക് തന്നെ സപ്പോട്ട് ചെയ്യുന്നുണ്ട് ചില ഇടങ്ങളിൽ എന്നാൽ ചില ഇടങ്ങളിൽ നാട്ടുകാർ വേണ്ടുന്നത്ര സഹകരണം കാണിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർക്ക് ചിലപ്പോൾ അവർ അവരുടെ പശുവിനെ ആടിനെയൊക്കെ കൊണ്ട് ചിലപ്പം കെട്ടുന്നത് ഈ പറഞ്ഞ ഗ്രൗണ്ടുകളിലായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ ക്രിക്കെറ്റ് കളിക്കാനോ ക്കെ ചെല്ലുമ്പോൾ അവർക്ക് അതിന്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതു കൊണ്ട് തന്നെ ചിലപ്പോൾ നാട്ടുകാരെ സപ്പോട്ട് ചെയ്യത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു കാര്യത്തിന് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇൻഡോർ സ്റ്റേഡിയങ്ങളൊക്കെ ഇപ്പം ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കൊല്ലം ജില്ലേലൊക്കെയായിട്ട് നമ്മുടെ സമീപ ദേശത്തൊക്കെ ആയാലും ഒരുപാട് ഇൻഡോർ സ്റ്റേഡിയങ്ങൾ വരുന്നുണ്ട് അവിടെയെക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് പോയി കളിക്കുന്ന ഒരുപാട് കുട്ട് ആൾക്കാരുണ്ട് നമുക്ക് അല്ലാതെ താദേശിക പരമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കീഴിലോ ഒക്കെയുള്ള പന് കളി സ്ഥലങ്ങൾ പൊതുവേ വളരെ കുറവാണ് ഉള്ളതു തന്നെയിപ്പം വൈകുന്നേരങ്ങളിൽ അവരുടെ നമ്മൾ കളിയ്ക്കാൻ ചെന്നാൽ തന്നെ അവിടെ ഒന്നെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുക അങ്ങനെ എന്തേലുമൊക്കെ ആയതു കൊണ്ടുതന്നെ അവിടെ നമുക്ക് വേണ്ടുന്ന അത്ര കളിക്കാനോ ഒന്നും പറ്റത്തില്ല പിന്നെ രാത്രിയായാൽ വെളിച്ചത്തിൻ്റെ അവൈലബിളിറ്റി കുറവായിരിക്കും അങ്ങനെയുള്ള കാരണങ്ങളാൽ നമുക്ക് ഒരിക്കലും അത് ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ കളിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയങ്ങളാണ് മാക്സിമം ഇവിടെ ഉപയോഗിക്കാറ് പൈസ കൊടുത്ത് നമ്മൾ അവിടെ പോയി കളിക്കും അതൊക്കെ ആകുമ്പോൾ അവർക്ക് അതിനുള്ള ലൈറ്റും കാര്യങ്ങളും ഫെസിലിറ്റീസുമെല്ലാം അവർ തരുന്നതു കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അല്ലാതെ ഗ്രൗണ്ട് പിന്നെയും എന്തെങ്കിലും ഓണ പരിപാടി അങ്ങനുള്ള പരിപാടികളൊക്കെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തും എന്നല്ലാതെ മറ്റ് വലിയ പരിപാടികളോ പ്രോഗ്രാംസോ ഒന്നും അങ്ങനെ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താറില്ല ആരെങ്കിലും ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ പിള്ളേർ ആരെങ്കിലും കളിക്കുമെന്നല്ലാതെ മറ്റ് പരിപാടികളൊന്നും നമ്മൾ നടത്താറില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഒരു സപ്പോട്ട് സത് വളരെ കുറവാണ് ഒരു ഗ്രൗണ്ടിൽ പ്രോഗ്രാം നടത്തുന്നതിന് ആയാലും കളികൾ വെക്കുന്നത് ഒക്കെയായാലും നാട്ടുകാരുടെ ഒരു സമീപനം വളരെ മോശമാണത് അവർ വേണ്ടുന്നത്ര പരിഗണന അതിന് കൊടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്